ഹലോ ഇത് ട്രാക്ക് മി കാർ ഏജൻസിയല്ലെ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങളിപ്പം ഡേറ്റ് ഉദ്ദേശിക്കുന്നത് ഇരുപതാം തിയതിയാണ് ഇരുപതാം തിയതി ഞങ്ങൾക്ക് തൃശ്ശൂർ മുതൽ

ഞങ്ങൾക്ക് വേണ്ടത് വലിയ വണ്ടികളാണ് രണ്ട് വണ്ടികൾ വേണം ഒമ്പത് സീറ്റുള്ള വണ്ടികളാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെൻ്റിന് പോവാനാണ് ഒരു വിവാഹ നിശ്ചയത്തിന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളെത്രത്തോളം വലിയ വണ്ടികൾ നൽകുന്നോ അത്രയും നല്ലതാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി മെമ്പേർസിന് പോവാനുണ്ട് ഞങ്ങൾ കുടുംബം ഒരുമിച്ചാണ് പോകുന്നത് ആ അച്ഛൻ അമ്മ അനിയത്തിമാർ അതെപോലെ ഞാൻ അങ്ങനെ വലിയൊരു കുടുംബമാണ് പോവുന്നത് പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ട് പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ വയ്ക്കാനുണ്ട് അപ്പം കുറച്ച് വലിയ വിശാലതയുള്ള വണ്ടി വേണം പിന്നെ ചൂടത്ത് പോകുമ്പോൾ നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രണ്ട് വണ്ടി വിളിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി തരാൻ പറ്റും ഇന്നോവയാണോ ഉള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇന്നോവ ഞങ്ങൾക്ക് വേണം ഒമ്പത് സീറ്റുള്ള വണ്ടി ആണെങ്കിൽ അത്രയും ഞങ്ങൾക്ക് ബാക്കിലിരിക്കാൻ പറ്റില്ല ഇത്രയും സ്ഥലത്ത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് ഇരിക്കാം ഇരിക്കാനെ ആളുണ്ടാവു പക്ഷെ എനിക്ക് രണ്ട് വണ്ടി വേണം അതെ പോലെ നിങ്ങൾ ഇത്രയും ദൂരയാണല്ലൊ പോകുന്നത് അപ്പം അതിൻ്റെ പണം എത്രയാകും എത്രയാണ് നിങ്ങൾ അതിന് വാങ്ങുന്ന പൈസ എന്നൊന്ന് പറയണം അത് പിന്നെ നിങ്ങൾ എത്ര വാങ്ങുന്ന ഈ ഡ്രൈവേസിൻ്റെ ഡീറ്റൈൽസും അതെപോലെ നിങ്ങൾ പെട്രോൾ ആരാണ് നിങ്ങൾ തന്നെ എടുക്കുകയാണൊ പെട്രോളിൻ്റെ പൈസ അതോ ഞങ്ങളാണോ കൊടുക്കേണ്ടത് അതും കൂടി ഒന്ന് പറയണം പിന്നെ ഇരുപതാം തിയതിക്ക് ആയത് കൊണ്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വയ്ക്കുകയാണ് അന്ന് പിന്നെ കാറില്ലെന്ന് പറയരുത് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഇത്ര ദൂരം ഞങ്ങൾ ഒരു രാവിലെ ആറ് മണിക്കാണ് ഇത്രയും ദൂരം പോവാനുദ്ദേശിക്കുന്നത് രാവിലെ ആറ് മണി തൊട്ട് ഞങ്ങളെ പിക്ക് ചെയ്ത് തിരിച്ച് കൊണ്ട് വരാനും വണ്ടി വേണം രാവിലെ ആറ് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി ഒരു ഏഴ് മണി ഏഴരയോടു കൂടി അവിടെ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതിക്ഷിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്ക് ഇറങ്ങിയാലും പ്രശ്നമില്ല പിന്നെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് നിശ്ചയത്തിനെത്താൻ വൈകിപ്പോവും അത് കൊണ്ടാണ് പിന്നെ തിരിച്ച് വരുന്നത് അഞ്ച് മണിക്കായിരിക്കും പരിപാടി കഴിഞ്ഞ് ഒരു അഞ്ച് മണിയോടു കൂടി നമ്മളവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഏഴര ആ ഒരു സമയം വരെ മാത്രമെ നമുക്ക് വണ്ടി ആവശ്യമുള്ളു അപ്പം നിങ്ങൾ വണ്ടിയുടെ നിരക്കും കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് ഒന്ന് പറഞ്ഞ് തരാമോ